ആ അതെ നിങ്ങളെന്താണ് രണ്ട് ദിവസമായി വന്നില്ല ആ ഇവിടെ കുറച്ചുദിവസം നേരത്തേ വേണം ഇപ്പോൾ വീട്ടിൽ പാലുകാച്ചലൊക്കെ അടുത്തുവരുകയാണ് അതിനുള്ളിൽ നമുക്കെല്ലാം ശരിയാക്കാം ഇനിയിപ്പോൾ അടുത്തയാഴ്ച ഉണ്ടാവും ആ ആ ഇപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് വരില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു പരിപാടിയായിട്ട് ഒന്ന് പുറത്തുപോകാൻ നിൽക്കുവായിരുന്നേ എന്തായാലും വന്നത് നന്നായി ഇനിയിപ്പോൾ പണികളൊക്കെ തുടങ്ങാം ആ അഞ്ചുദിവസം ഉണ്ടാവുവല്ലേ ആ ആ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു തരണോ അതോ നിങ്ങൾ മേടിക്കുവോ ആ ആ ആ എത്രയാണ് ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എല്ലാ എന്തൊക്കെ വാങ്ങണം ആ എല്ലാം ഒന്ന് പറഞ്ഞു തന്നോ ഏകദേശം അറിയാമല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ അതേ പതിനായിരത്തിന്റെ ആ ആ ആ ഏകദേശം നമ്മുടെയൊരു പിന്നാമ്പുറത്തായിട്ട് ആ ഒരു സൈഡിൽ ആയിട്ട് നിങ്ങളിപ്പോൾ വരില്ലേ ഇപ്പോൾ ആ നമുക്ക് നോക്കാം ദാ ഈ ഒരു ഭാഗം ദാ ഈ ഒരു സൈഡിലായിട്ടാണ് കെട്ടേണ്ടത് ആ

ആ കുഴപ്പമൊന്നുമില്ലെന്നാണ് ആൾ ഞങ്ങളന്വേഷിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്നാണ് തൊട്ടപ്പുറത്തെ രണ്ടു വീട്ടിലെ അപ്പുറത്തെ അവർക്കും ഇതുപോലെ ഉണ്ട് ടാങ്ക് ഉണ്ട് ആ അപ്പോൾ പിന്നെ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ സ്ഥലം മതിയാവൂവുമല്ലോ അല്ലേ മരങ്ങളിപ്പോൾ ഇപ്പോൾ മരങ്ങളിപ്പോൾ ഓൾറെഡി തണലൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ആ ടാങ്കിന് വേണ്ട സ്ഥലം മാത്രം നമുക്ക് വിട്ടിട്ട് ആ അല്ലേ ആ അപ്പം ആ അപ്പം എന്തായാലും ഒന്ന് ആ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വൈകുന്നേരം മറ്റേ ഇന്നെന്തായാലും മുറിക്കാൻ വരാൻ പറയാം വെട്ടാനേ വെട്ടാൻ പറയാം അതുകഴിഞ്ഞിട്ട് ഇപ്പോൾ നാളെത്തൊട്ടൊന്ന് പണി തുടങ്ങിയാൽ മതിയല്ലേ ആ ആ ഏകദേശം ഇപ്പോൾ എത്രയൊക്കേ ആകും ഇപ്പോൾ ഈയൊരു ടാങ്ക് വയ്ക്കാൻ എത്ര ചിലവാകും അതെ അല്ലേ ആ ഇപ്പോൾ കുറവാവാനൊന്നും ഇല്ലേ കുറക്കാനൊന്നും ഇല്ല അല്ലേ ആ അതിനുമുൻപ് തീർക്കണം പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ വരുമെന്ന് വിചാരിച്ചില്ല രണ്ടുദിവസമായിട്ട് ആ അപ്പോൾ ആ എത്ര പണിക്കാരുണ്ടാവും വരുമ്പോൾ ആണല്ലേ അപ്പോൾ നമ്മൾ വരുമ്പോൾ ആ ആ ആ ആ ആ ആ ആ ഇപ്പോൾ എന്തായാലും ചേട്ടാ ഒന്ന് പണിക്കാരോടൊന്ന് പറയൂ കേട്ടോ നാളെത്തൊട്ട് പണിയുണ്ടെന്നൊക്കെ ഇനിയിപ്പോൾ അപ്പോൾ ചേട്ടന് ചായയെടുക്കട്ടേ ചായ ആ അതെയോ അപ്പോൾ നാളെയെന്തായാലും പണിയുണ്ടെന്ന് ഞാനപ്പോൾ ഇന്ന് മുറിക്കാൻ പറയാം ആ ഓക്കേ ആ ശരി ആ ശരി